അത് അവരെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം എന്നെ പറയാൻ പറ്റൂ അതായത് ഒരാളെയും നമുക്ക് നിർബന്ധിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പറ്റില്ല അതായത് ഇതൊക്കെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം വരെ സാധിക്കുള്ളൂ ബാക്കിയൊക്കെ അവരവർക്ക് താല്പര്യമുള്ളപോലെ വിദ്യാഭ്യാസം ചെയ്യണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് ഇവുടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുതന്നെയാണ് അല്ലാതെ എല്ലാവർക്കും അത് ശരിയാവണം എന്നില്ല കാരണം അവരവരുടെ താൽപര്യത്തിന് അനുസരിച്ച് വേണം നമ്മൾ എല്ലാം ചെയ്യാൻ അതൊക്കെ അവർ തീരുമാനിക്കുന്നതുപോലെത്തന്നെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ